മലയാളം നമ്മുടെ മാതൃഭാഷയാണ് മലയാളികൾ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കാനും അവരുടെ ഭാഷ വളരെ നല്ല രീതിയിലാണോ ഉപയോഗപ്പെടുത്തുന്നത് പലരിലും പല രീതിയിലാണ് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കാനും മുന്നിട്ടുനിൽക്കുന്നത് മലയാളം കേരളത്തിൽ പല ജില്ലകളിലും വ്യത്യസ്ത രീതിയിലാണ് സംസാരിക്കാനായി ഉപയോഗിക്കുന്നത് നമ്മുടെ നാടുകളിൽ മലയാളികൾ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാൻ ആദരിക്കാന് ഭാഷകൾ ഉപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായാണ് ചിലർ സംസാരത്തിലൂടെയും ചിലർ വസ്ത്രധാരണത്തിലൂടെയും ചിലർ അവരുടെ സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുമാണ് അവരുടെ ഭാഷകൾ വ്യത്യസ്തമാക്കുന്നത്